കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ജോലി ചെയ്യുന്നതിനുള്ള പ്രധാന അവസരങ്ങളും വെല്ലുവിളികളും വെല്ലുവിളികളെന്തൊക്കെയാണെന്ന് ചോദിച്ചാല് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഹയർ സെക്കണ്ടറി വിദ്യാഭ്യാസത്തിലേക്കുള്ള പ്രവേശനം മൂന്നെ പോയിന്റ് എൺപത്തൊന്ന് ലക്ഷം അക്കാദമിക് അവസരങ്ങൾ പ്ലേസ്മെന്റ് അങ്ങനെ ഉള്ളതുകൊണ്ട് ഈ വിദ്യാഭ്യാസ മേഖലയില് വിദ്ധ്യഭ്യാസമെന്ന് പറഞ്ഞാൽ ഇപ്പം പഠിച്ച് നൽ കൂടുതലായിട്ട് പഠിച്ച് പൈസ കിട്ടി പഠിച്ചവരും പൈസ ഇല്ലാതെ പഠിച്ചവരൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ളവർക്കൊക്കെ എത്ര പഠിപ്പുണ്ടായിട്ടും അവർക്കൊന്നും ജോലി കിട്ടാത്ത അവസ ഇതൊക്കെയാണ് ഇപ്പം ഉള്ളത് ജോലി പഠിക്കാത്തവർക്കൊക്കെ വേഗം ഇപ്പം ജോലി കിട്ടുന്നുണ്ട് അവരുടെ ജാതിയാണെങ്കിൽ തന്നെ പട്ടിക ജാതി പട്ടിക വർഗ്ഗക്കാർക്കൊക്കെ ഇപ്പം വേഗം തന്നെ ജോലി കിട്ടും അവര് പഠിച്ചാലും ഇല്ലെങ്കിലും എത്രവരെ പഠിച്ചു എന്നുള്ളതൊന്നും ചോദിക്കുന്നില്ല അവർക്കൊക്കെ വേഗം ജോലി കിട്ടുന്നുണ്ട് എന്നാൽ സാധാരണക്കാരായ നമ്മള് പൈസ മുടക്കി ഒരുപാട് കഷ്ട്ടപ്പെട്ട് പ്രയത്നിച്ചും പഠിച്ചിട്ട് നമുക്കൊരു ജോലി വരെ കിട്ടാത്തൊരു അവസരങ്ങളക്കെ ഉണ്ടാകാറുണ്ട്